ടൂറിസ്റ്റ് ഗൈഡല്ലേ ആ ഞാൻ ബാംഗ്ളൂരിൽ നിന്ന് വിളിക്കയാണ് എനിക്ക് കേരളം ഫുള്ളൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് എവിടൊക്കെയാണ് ടൂറിസ്റ്റ് പ്ലേസെന്ന് പറയാമോ ആ നമുക്കൊരു മാസ ബഡ് ഒര് മാസ ബജറ്റിനുള്ള ബില്ലാണ് പരുപാടിക്കുള്ളതാണ് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെയാ വരണം പിന്നെ കുറച്ച് ആഘോഷങ്ങൾ ട്രഡീഷനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ വേണം ആ ഓക്കെ

ആ ഓക്കെ അപ്പം നമുക്ക് ഫുഡ്ഡ് ആൻഡ് അക്കൊമഡേഷനൊക്കെയോ ആ അത് ആ അതൊക്കെ അറേഞ്ച് ചെയ്ത് തരേണ്ടി വരും ആ പിന്നെ ഞങ്ങൾ മു ആ ഒരു നാല് ആൾക്കാരാണ് ഉണ്ടാവുക ആ രണ്ട് ഫാമിലി ആണ് ആ അപ്പോൾ അതിൻ്റെതായ രീതിയിൽ വേണം രണ്ട് റൂമുകൾ സെറ്റ് ചെയ്ത് തരണം പിന്നെ കാര്യ ട്രാവൽ ചെയ്യാൻ നിങ്ങളെങ്ങനെയാണ് വണ്ടി ത ആ ആ എന്തായാലും കുഴപ്പമില്ല ആ ഓക്കെ അതിനെത്രയാണ് ബഡ്ജറ്റ് വരിക നമുക്ക് ആ ഓക്കെ അല്ലാണ്ട് താമസത്തിൻ്റെയും ഇതിൻ്റെയൊക്കെയോ ആ ഓക്കെ നിങ്ങളെന്നാൽ ഈ എല്ലാം കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതിയിലുള്ളൊരു പാക്കേജ് ഒരു എനിക്ക് വാട്സപ്പ് ചെയ്ത് തരുമോ ഐടിയോളൻറ്റി ഓക്കെ എന്നാൽ ശരി ആ പറയുന്നത് ഫുഡ് എല്ലാം ആക്കമഡേഷൻ ഉള്ളടത്ത് മതി നമുക്ക് പോകുന്ന ട്രാവൽ ചെയ്യുന്ന രീതിയിൽ ഓക്കെ താങ്ക്യൂ